ആരാണ് വിളിക്കുന്നത് ഓ ശരി ശരി ആ നമുക്ക് ഇപ്പോൾ നാട്ടിലെന്ന് പറയുമ്പോൾ കും കുമരകത്ത് ആണ് ഏറ്റവും നല്ല ഫുഡൊക്കെ സീ ഫുഡ് ഒക്കെ കിട്ടുന്നത് അവിടെ ആണെങ്കിൽ ഇപ്പോൾഹൗസ് ബോട്ടിങ് ചെയ്യാം എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ഫുഡ് ഉണ്ട് എന്തൊക്കെയാണ് കൊഞ്ച് കരിമീൻ അങ്ങനെയുള്ള നല്ല നല്ല ഫിഷ് ഒക്കെ ക ഉണ്ടാകും

അത് മതിയോ ആ കുമരകത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പേടി വേണ്ട എല്ലാം നമുക്ക് അഫഫോർഡബൾ ആയിട്ടുള്ള റേയ്റ്റേ ഉള്ളു എൻജോയ് ചെയ്യാനും പറ്റും കാഷ് ന ലാഭം ലാഭം കിട്ടുന്നപോലെ ആയിരിക്കും ഞങ്ങളുടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെയ്ക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ ആണെലും എൻജോയിമെൻ്റിൻ്റെ കാര്യത്തിൽ ആണെലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അഫോർഡബ്ൾ ആയിട്ടുള്ള റേറ്റിൽ ആയിരിക്കും ഞങ്ങൾ എല്ലാം ചെയ്ത് തരുന്നത്

എന്നത്തേയ്ക്കാണ് വേണ്ടതെന്ന് ഒക്കെ പറഞ്ഞാൽ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് ഹൌസ് ബോട്ടിൽ തന്നെ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലം ഉണ്ട് അല്ലാണ്ട് നമുക്ക് ചെന്ന് ഇറങ്ങി വിസിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഉണ്ട് മാം നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളത് പോലെ എങ്ങനെ ആണെലും ഞങ്ങൾ കൊണ്ടു വിട്ടേക്കാം ആ ഓക്കേ ഓക്കേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചേക്കാം